ആ ആ ആ സാരി വേണമായിരുന്നു പട്ട് സാരി ഇപ്പോൾ പുതിയ ട്രെൻഡ് എല്ലാം ഇറങ്ങിയ അങ്ങനെ പുതിയത് ആയിട്ടുള്ള ഡാർക്ക് ഡാർക്ക് കളർ അത് ഗ്രീൻ പിടിയായിടെ കളർ ഗ്രീൻ ഇല്ലേ നല്ല കടും പച്ച കളർ ആ അതിൽ റെഡ് റെഡ് വരുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ആ ആ ആ ആ ഇത് അല്ലാണ്ട് വേറെ കളക്ഷൻ ഉണ്ടോ ആ ആ ആ അത് ഒന്ന് മാറ്റി വയ്ക്കുവോ വേറെ ഏതെങ്കിലും ഇത് വേണ്ട രണ്ടാമത്തെ എടുത്താൽ മതി എല്ലാവരും ഇനി ഈ സ്റ്റോൺ വെച്ച സാരികൾ സ്റ്റോൺ വെച്ച സാരികൾ ഉണ്ടാവില്ലേ ആ പ്ലെയിൻ സാരി ഉണ്ടോ പ്ലെയിൻ സാരി പ്ലെയിൻ ആയിട്ട് ആ പ്ലെയിൻ സാരി നോക്കാം ആ ആ സ്കൈ ബ്ലൂ കളർ ഉണ്ടോ സ്കൈ ബ്ലൂ കളർ

ആ ഇപ്പം ഇത് മതി ജെൻറ്റ്സിന്റെ സെക്ഷൻ ഒക്കെ എവിടെയാണ് ജെൻറ്റ്സിൻ്റെ സെക്ഷൻ മുണ്ട് എടുക്കണമായിരുന്നു പിന്നെ ഷർട്ട് ആ എം സി ആറിന്റെ നോക്കാം ആ ഓക്കെ ഗോൾഡൻ കളർ ആ ഗോൾഡൻ കളറിൻ്റെ ഡ്രസ്സ് മതി ആ ഇതോ ഒരു ബ്ലൂ തന്നെ

വയസ്സ് മുപ്പത്തൊൻപത്

മാച്ച് അല്ലെ ഇത് മുണ്ടും ഡ്രസ്സും തമ്മിൽ അതെയോ വേണ്ട തൽക്കാലം ഇത് മതി ഇല്ല ഇല്ല മതി മതി ഇത് മതി ഇല്ല ഇത് മതി

ഇല്ല തൽക്കാലം ഇത് മേടിക്കാം പിന്നെ ഒരു ദിവസം വേറൊരു ദിവസം വരാം എടുക്കാൻ വേറൊന്നും വേണ്ട